ഞങ്ങളിവിടെ ഉച്ച ഊണിനു അത്താഴത്തിനുവൊക്കെ ഉച്ച ഊണിന് ഞങ്ങൾ ചോറ് സാധാ ചോറ് സാമ്പാർ പിന്നെ മീൻ എല്ലാവർക്കും ഇവിടെ മസ്റ്റാണ് കാരണം ഞങ്ങൾ എല്ലാവർക്കും മീൻ ഭയങ്കര ഇഷ്ടമാണ് മീനില്ലെങ്കിൽ പിന്നാരും ആഹാരത്തിനധികം താല്പര്യം കാണിക്കില്ല അപ്പാപ്പനായാലും അമ്മാമ്മക്കായാലും ഒക്കെ മീൻ ഭയങ്കര ഇതാണ് എനിക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും മീൻ നല്ല മസ്റ്റാണ് അപ്പം എപ്പോഴും മീൻ ഉണ്ടാവും കൂടെ പിന്നെ മീൻ ഫെ മറ്റെ പൊരിച്ചതും വറുത്തതും പിന്നെ തോരനൊക്കെ വെച്ചതും അങ്ങനെ എന്തേലും മീൻ കൊണ്ടെന്തേലും ഒരു ഐറ്റം ഉണ്ടായിരിക്കും ഉറപ്പാണ് പിന്നെ ഉള്ളത് മോര് കറി സാമ്പാർ തോരൻ അവിയൽ അങ്ങനുള്ള വെജിറ്റേറിയൻ വെജിറ്റേറിയൻ അല്ല നമ്മളീ പച്ചക്കറികളൊഴിവാക്കാൻ പാടില്ലല്ലൊ അതുകൊണ്ട് പച്ചക്കറിയൊക്കെ എപ്പോഴും കാണും പിന്നെ ഇതൊക്കെ തന്നെയാണ് സാധാരണ നമ്മൾ പിന്നെ രാത്രി നമ്മൾ അത്താഴത്തിന് ചില സമയത്ത് കഞ്ഞി കുടിക്കാറുണ്ട് കഞ്ഞീം പയറും കുടിക്കാറുണ്ട് കാരണം എപ്പോഴും ചോറായാലും ഒരു മടുപ്പല്ലെ അതുകൊണ്ട് രാത്രി ചിലപ്പം നമ്മൾ കഞ്ഞി കുടിക്കും കഞ്ഞി പയർ അല്ലെങ്കിൽ കഞ്ഞി ചമ്മന്തി കഞ്ഞീം ചമ്മന്തീം പപ്പടോം ഒക്കെ കൂട്ടി അങ്ങനെ കഴിക്കും